പ്രപഞ്ചത്തെയും അതിൻ്റെ നിഗൂഢതകളെയും കുറിച്ച് എനിക്കേറ്റവും ആകർഷകമായി തോന്നുന്നത് പ്രപഞ്ചത്തെ നിലനിൽപ്പ് തന്നെയാണ് ഒരു പരസഹായമില്ലാതെ പ്രപഞ്ചം നിലനിൽക്കുമെന്നുള്ള കാര്യം ഒരു അത്ഭുതമാണ് അതിൻ്റെ ഒരു പുറകിലുള്ള ആ ഒരു അജ്ഞാത ശക്തി ദൈവമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന

അങ്ങനെയുള്ള കാര്യങ്ങളിലൊരു നമുക്കൊരു എപ്പോഴും ആകർഷകമായി തോന്നുന്നത് ഇതൊക്കെ തന്നെയാണ് കടലിലെത്തുന്ന വെള്ളം നീരാവിയായിട്ട് ആകാശത്തേക്ക് ഉയരുകയും അവിടെ കാർമേഘങ്ങൾ രൂപപ്പെടുകയും കാർമേഘങ്ങൾ തണുത്ത കാറ്റടിക്കുമ്പം മഴയായിട്ട് ഭൂമിയിലേക്ക് പെയ്യുന്നു അത് മണ്ണിലേക്ക് ഊർന്നിറങ്ങി അത് പിന്നീട് ഉറവകളായി നദികളിലും കിണറുകളിലും എത്തുന്ന നദികളിലെത്തുന്ന വെള്ളം വീണ്ടുമൊഴുകി വലിയ തടാകങ്ങളിലേക്കെത്തുകയും അല്ലെങ്കിൽ വലിയ ആറുകളായി മാറുകയും

ഇനി മഴ പെയ്യുമ്പം നമുക്ക് ഒന്ന് ഓരോ നമ്മൾക്കൊരു തണുപ്പുണ്ടാകുന്നതും മഴ മഴവെള്ളം സംഭരിക്കപ്പെടുന്നതും

മഴപെയ്തില്ലങ്കിൽ നമുക്ക് അതിലൊരു മഴ മഴ എങ്ങനേക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും